സാധാരണയായി ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ടൂവീലറുകളാണ് മെയിനായിട്ട് ബൈക്കുകൾ എന്തുകൊണ്ടെന്നാൽ നമ്മൾ നമുക്ക് എക്കോണമിക്കലായിട്ട് നമുക്ക് നമ്മുടെ സാഹചര്യം കൊണ്ടും സാധാരണക്കാരന് എപ്പോഴും യാത്ര ചെയ്യാൻ സൗകര്യം ടൂവീലറുകൾ ആണ് ഒന്നോ രണ്ടോ പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാം അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹിൽ സ്റ്റേഷനുകളിലോ മറ്റു തണുത്ത ക്ലൈമറ്റ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മറ്റു വാഹനങ്ങളിലാവുമ്പോൾ നമുക്കാ തണുപ്പ് ഒരിക്കലും ഫീൽ ചെയ്യാൻ കഴിയില്ല ബൈക്കിലാവുമ്പോൾ നമുക്ക് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ യാത്ര കുറച്ചു കൂടി സുഖകരാകും നമുക്കത് ഫീൽ ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പറ്റും